ഹലോ സാറേ ആ സാറേ ഞങ്ങളുടെ നമ്മുടെ വീടിൻ്റെ വീടിൻ്റെ അതിൻ്റെ പൈപ്പ് കണക്ഷന് എന്തോ പ്രശ്നമുണ്ട് വെള്ളം ശരിക്ക് കിട്ടുന്നില്ല അപ്പോൾ അത് അതിന് എങ്ങനെലും അതിലൊന്ന് ചെയ്യാവോ അതൊരു ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ട് പിന്നെ ഇപ്പം ഇപ്പം വെള്ളം ഒട്ടും കിട്ടുന്നില്ല ഞങ്ങൾക്ക് ഭയങ്കര ഞങ്ങളിപ്പോൾ വെള്ളം വേറെ സ്ഥലത്തൂന്ന് പോയി കൊണ്ട് വരുകയാണ് ചെയ്യുന്നത് പിന്നെ ആ ആ

ഉവ്വ് ഉവ്വ് ഉവ്വ് ആ ഓ ഉവ്വ് ഉവ്വ ആ ഉവ്വ് ഉവ്വ ആ പിന്നെ ന പിന്നെ നമ്മുടെ ഈ എന്നാൽ മഴ പെയ്യുമ്പോഴ്ത്തേനും പെട്ടന്ന് ഈ വെള്ളം അവിടെ അങ്ങ് നിറയുവാ മിറ്റത്തെല്ലാവേ നമുക്ക് അങ്ങോട്ട് മിറ്റത്തെന്നും അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല അതന്നെ വെള്ളം പോകാനുള്ള എന്തെങ്കിലും ഒരു ആ പിള്ളേർ ഉവ്വ് ആ പിള്ളേരെല്ലാം ഉള്ളതുകൊണ്ട് പിള്ളേർ ഉള്ളതുകൊണ്ട് നമുക്ക് പിള്ളേരോന്നും മിറ്റം പുറത്തോട്ട് ഇറക്കാൻ പറ്റുന്നില്ല ആ ഉവ്വ് ഉവ്വ് ആ ഉടനെ ഉടനെ തന്നെ ചെയ്യാവോ ഉടനെ തന്നെ ആ ഉവ്വ് ഉവ്വ ഉവ്വ ആ ഹ ഹ ഹ വേറെ പ്രോബ്ലം ഇതാ ഇതാണ് മെയിനായിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് ആ അതെ അതെ ഒത്തിരി ഞങ്ങളെ ഞങ്ങൾ തന്നെ ഞങ്ങൾ തന്നെ അത് പൈപ്പിൻ്റെ വെള്ളത്തിൻ്റെ ഒക്കെ ഞങ്ങൾ തന്നെ ഒന്ന് ചെയ്യാവെന്ന് ഒക്കെ കുറെയെല്ലാം നോക്കി അങ്ങനെ ഇടക്കിടയ്ക്കിടെക്കങ്ങനെ വെള്ളം കെട്ടുന്നുണ്ടായിരുന്നു അ ഉവ്വ ഉവ്വ ഞങ്ങൾക്കേ ഇവിടുത്തെ ആൾക്കാരെ ഞങ്ങൾക്കങ്ങനെ വലിയ പരിചയമില്ലാത്ത കൊണ്ട് ആരെയാണ് വിടെണ്ടെ വിളിക്കേണ്ടത് എന്നൊന്നും അറിയത്തില്ല അത് കൊണ്ട് ആ ആ ഉവ്വ ഉവ്വ ആ ഹ ഹ എന്നാൽ താങ്ക് യൂ